എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ട് മൊബൈൽ ഫോണായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൈയ്യിലിരിക്കുന്ന ഒരു ഫോൺ ഭയങ്കര ഹാങ്ങ് ആയതുകൊണ്ട് റിയൽമീൻ്റെ ഒരു ഫോൺ ആയിരുന്നു അപ്പോൾ അത് ഭയങ്കര ഹാങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ വേറെ ഫോൺ മേടിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ ഓൺലൈനിൽ കുറേ നോക്കി അപ്പോൾ കണ്ടില്ല അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് ഫോൺ നോക്കിയത് അതായത് ഇ എം ഐ ഓപ്ഷൻ ഇണ്ടായിരുന്നില്ല എനിക്ക് ഇ എം ഐ ഇട്ട് എടുക്കാനായിരുന്നു അപ്പോൾ ഞാൻ നേരെ ഇമേജിൻ്റെ ഷോറൂമിലാണ് പോയത് ഇവിടെ ഇഷ്ടം പോലെ ഇത് ഉണ്ടെങ്കിലും ഞാൻ ഇമേജിൻ്റെ ഷോപ്പിലാണ് പോയത് അപ്പോൾ ഇ എം ഐ ഇട്ട് എടുക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവിടെ അതുകൊണ്ടാണ് അവിടെ പോയി എടുത്തത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തെ അത്യാവശ്യം നല്ലൊരു ഫോണാണ് വിവോ വി ട്വൻറി നയൻ ഇ ആണ് മേടിച്ചത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോണാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഫോണ് അതായത് ലൈറ്റ് വെയ്റ്റാണ് ഹാങ്ങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫോണാണ് അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി കാര്യങ്ങൾ എല്ലാം ഉള്ളൊരു നല്ലൊരു ഫോണാണ് അതായത് നമുക്ക് നല്ല ബെറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടിയൊരു ഫോണാണിത്